നമുക്കന്ന് പറയുമ്പ ഇപ്പം അങ്ങനെ ട്രെൻഡ പിടിച്ച് പോലുംൊന്നൂല്ല നമ്മളിപ്പ ഒറ്റ വൈനില അങ്ങെ പോലാണ് നമുക്കി പിന്ന സ്ഥലത്തേക്ക് പോവാൻ തോന്നി കഴിഞ്ഞാങ്ങാട്ടേക്ക് പോകും തോന്നി മാത്രം പോലല്ല നമുക്കിപ്പ വണ്ടി വേണം പിള്ളേര് വേണം പെട്രോള അടിക്കാം ഫണ്ട് വേണം കാശ് വേണംതൊക്കെ വേണ്ടതാണ് ട്രെയിൻ് പിടിച്ച് പോല് നോക്കിിക്കഴിഞ്ഞാ നല്ല എക്സ്പെൻസാവകും കാരണം ഇപ്പ റീല ഞങ്ങക്ക് കൊറേ സജഷൻസ് തന്നെണ്ട് മറ്റേ നിങ്ങൾക്ക് ഫ്രീയ ആയിട്ട് ലഡാക്കിലേക്ക് അല്ല ഫ്രീ ആയിട്ടല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ലഡാക്കിലേക്ക് പോേണുള്ള സൗകര്യം ഞങ്ങ ഒക്കി തരാന്ന് പറഞ്ഞിട്ട് ഒരു്പോ ഇങ്ങനെ സജഷൻസ് തന്നണ്ട് അപ്പ നമ്മ നോക്കുമ്പം അല്ല ഡാക്കിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മിപ്പ ഈ മൂന്നാറും ഇടിക്കാ പോണലല്ലല്ലേ ഡാക്കിലേക്ക് പോണത് അതും വീട്ടിലൊക്കെ പറഞ്ഞ വരുമ്പത്തേക്കും നടക്കണ കാര്യോല്ല അത് മിലേ അപ്പ അങ്ങനൊക്കെ നക്ക്പ നുക്കക്ക്തിരി ബുദ്ധിമുട്ടുള്ള ആയാണ് അപ്പ ട്രെയിൻ്റെ പിടിച്ച്ോകുമ്പോ നമുക്ക് ഫണ്ട് കിട്ടൂല ഫണ്ട് കിട്ട വരുമ്പോത്തേക്ക് കണ്ടിട്ട് വരുമ്പത്തേക്ക നമക്ക് റെൻറിന് വണ്ടി കിട്ടൂല അല്ല ഇതക്കെ റെഡിയ ആയിക്കഴിഞ്ഞാലും പിള്ളേരുണ്ടാവൂല പെട്രോള ടിക്കണ്ടേ വെറതെ പോയ മാത്രം പോലല്ല പിന്നെ അങ്ങനാ നമുക്കങ്ങനാ ട്രെൻഡന്നൊന്നുല്ല നമ്മ ഇപ്പ ഒ മറ്റേ വീട്ടാര അറിയാണ്ട് നമ്മിത് ട്രിപ്പ് വന്നിക്കണ്ട് ഇഏത് അടെ ട്രിപ്പ് വാന്നിക്കണ്ട് അപ്പ ഞങ്ങ ഏഴാഴ മുഖത്ത് പോയി ഞങ്ങോാവശ്യം മതി ഈ ഫെയർവെല് കഴിഞ്ഞിട്ടാണ് പോയതേ അങ്ങനെ ട്രിപ്പൊക്കെ പോയി അടിിച്ച പൊളിച്ച് തിരിച്ച് വന്ന് വണ്ടി റെൻറിന് എടുത്താ പോയത് ലൈസൻസൊക്കെ ഇണ്ട് വണ്ടി റെൻറിന് എടുത്ത് പോയി ആ്മാര് ഫോർച്ൂണർ എടുത്ത് വേറൊരുത്തൻ മറ്റേ ഉ്മാടെ സ്കൂട്ടർ എടുത്ത് ഞാൻ എംടിി റെൻറിന് എടുത്തിട്ട് ഞാൻ പോയി ഫേവറേറ്റ് വണ്ടി അങ്ങനൊന്നുല്ല ഫേവറേറ്റ് വണ്ടി ഇന്നതാണ് ഇന്നൊന്നൂല്ല നമ്മക്കിപ്പ റേറ്റന് റേറ്റ് കൊറ ഒരു വണ്ടി കിട്ടുന്നാനുള്ള കാര്യം നമക്കിപ്പ ഫേവറേറ്റ് വണ്ടീലൊക്കെ പറഞ്ഞരുമ്പത്തേക്കും ചെലപ്പോ പത്ത് രൂപൻ്ന വണ്ടിയൊക്കെ ഇപ്പന്ന് റെണ്ടി ഇ ബിഎംഡബ്ലൂടെ ബൈക്കവാസാക്കിയടെ ബൈക്കെ എടുത്ത് ട്രിപ്പിന്ോണെന്നുണ്ടെി അയിൻറെ തന്നെ ഒരു വത്ത്ുപ്പ അൻ്റെൻ്റെ ചെലവ് ഒരു പെട്രോളൊക്കെ കടിയം ചേർത്തിട്ട് ഇഏത് ഒ കുടിയം ചേർത്ത് വരുമ്പോളത്തേക്കും പത്ത് മുപ്പതിന അയിൻ് ആയിരപതിനായിയിൻ് അമ്പതിനായിയിൻ്റെ ചെലവ്രും ഒരു ട്രിപ്പ് പോണേന് കാര അതിനന്ത്ര പെട്ടുള്ളള്ള അടിയാ മലേജില്ലാത്ത വണ്ടികളായിരിക്കുള്ളൂ കാരണം അത്രക്കും പവറാണ് അഗ്രസീവ്ായിയിട്ടുള്ള ആക്സിലറേഷനായിനിക്ക് അപ്പ അത് ശോഖണ് അപ്പ അങ്ങനെ വെച്ച് നോക്കി പോകുമ്പോ താല്പര്യപ്പെട്ട വണ്ടിലൊക്കെ പോകുമ്പോന്ന് പറയണത് ആത് നമ്മ സ്വന്തായിട്ട് എടുത്ത വണ്ടീയില്ല് നമ്മ അധ്വാനിച്ച പെട്രോളടിച്ച അങ്ങനെ അങ്ങനെയൊക്കെയാണെന്ന്ുണ്ടെങ്കി എല്ല സമാധാനത്തില് സന്തോഷത്തില് പോവാ പെട്രോള അത്ര നോക്കിയ മതി പിന്നെ വണ്ടിക്കുന്നേലും മറ്റോും പിന്നെ ട്രിപ്പ് പോവുമ്പോ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഇണ്ടല്ല സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇണ്ട് ഹൈ റേഞ്ചാണ് ആക്സിലേറ്ററൊക്കെ നോക്കി കൊടുക്കണം ബ്രേക്ക് വണം ഗിയറി ഇടണം അങ്ങനെ അങ്ങനെ അങ്ങനെ വണ്ടിലൊക്കെ ഓപ്പോസിറ്റ്് വന്നതാണ് കൊറച്ച് ഡെയിഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെയണ് ഏത് കാരരിച്ച ബദ്ധിമുട്ടുള്ളതാണ അറിയാം എന്നാലും പോണ്ടിക്കാണ്ടില്ലല്ലോ ട്രിപ്പ് ഞ പോയതാണ് രണ്ടോ മൂന്നാല് ട്രിപ്പൊക്കെ ഞങ്ങ പോയിട്ടുള്ളളാണ്ണതേ ഇപ്പപ്പോ വേറൊരു ട്രിപ്പ് വന്നണ്ട് പ്ലാൻ ചെയ്യുണ്ട് വട്ടവവിടെ കൂടാനായിട്ട് അങ്ങനെങ്ങെ കൊറച്ച് ട്രിപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കയാണ്